അതേ എന്താണ് വേണ്ടിയത് ബീഫുണ്ടല്ലോ ഞങ്ങളങ്ങനെ ഒരു നാളും ചെയ്യാറില്ലല്ലോ ഞങ്ങളങ്ങനെ കൊടുക്കാറില്ല ഞങ്ങൾ പോത്തെർച്ചിക്ക് പോത്തെർച്ചി മാത്രമേ കൊടുക്കാറുള്ളു അ നല്ല സാധനം തന്നെ നല്ല അ നല്ല സാധനം തന്നെ ഞങ്ങൾ തന്നേക്ക ഞങ്ങളുടെ റെയ്റ്റ് നാന്നൂറ് രൂപ ഇത് കുറയത്തില്ല ആ എന്നാൽ ഇരുപത് രൂപ കുറച്ച് തരാം ആ ഇരുപതേ കുറയത്തുള്ളു എല്ലായിടത്തും നാന്നൂറ്റി ഇരുപത് ഇവിടെ നാന്നൂറ് ഉള്ളു ഞങ്ങളുടെ നല്ല ഒറിജിനൽ ബീഫാണ് ഞങ്ങൾ കൊടുത്തവരാരും ഇത് വരെയും കംപ്ലൈൻ്റ പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ടും ആ അത് ശരി നിങ്ങൾക്ക് വേണോ ഇല്ലയോന്ന് പറഞ്ഞേച്ചാൽ മതി വേണമെങ്കിൽ ഞങ്ങൾ തരാം ഇല്ലെങ്കിൽ

എന്നത്തേക്കാണ് വേണ്ടിയത് എന്നത്തേക്ക് വീട്ടിൽ വീട്ടിലെത്തിക്കാനോ ഡെലിവെറി ചെയ്യാണ് വേണ്ടിയത് പൈസ അക്കൗണ്ടിൽ ഇടുക കണ്ടിട്ടേ പൈസ തരു കണ്ടിട്ടേ പൈസ തരത്തുള്ളു ഞങ്ങൾ ഞങ്ങൾ മായം ചേർക്കുക ഇല്ലല്ലോ അപ്പം അ നിങ്ങൾ അന്നേരം പാകം ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് പൈസ തരുന്നത് നി നിങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ഞങ്ങൾ പൈസ തരുന്നത് അല്ല അതിനെ കാണുമ്പോൾ ആ ഓക്കെ

രാ രാവിലേ വേണം ആരേലും വിടാൻ പറ്റുമോ

എന്നാൽ ശരി ആ ഞാൻ ഞാൻ എട്ട് മണിക്ക് എത്തിച്ചേക്കാം